നമ്മുടെ നാട്ടിലെ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളും ടൂർണമെൻ്റുകളും നടത്താറുണ്ട് കൂടുതൽ നമ്മുടെ രാഷ്ട്രീയം മെയിനായിട്ടുള്ളത് ടൂർണമെൻ്റ് നടത്തുന്ന യുവജന പ്രസ്ഥാനങ്ങളാണ് ഇവിടെ കൂടുതലുള്ള അത് യൂത്ത് കോൺഗ്രസ് ഡി വൈ എഫ് ഐ പോലുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിൽ കൂടുതലും ടൂർണമെൻ്റുകൾ നടത്തുന്ന യുവജന പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇതൊക്കെ അവർ കൂടുതലും ഈ ഗ്രൗണ്ടുകളിലൊക്കെ കൂടുതൽ അറിയാവുന്ന ഗ്രൗണ്ടുകളിലൊക്കെ ആയിരിക്കും സ്കൂൾ ഗ്രൗണ്ടുകളിലൊക്കെ സ്കൂൾ ഗ്രൗണ്ടുകളിലൊക്കെയാണ് കൂടുതൽ ഇതുപോലുള്ള ടൂർണമെൻ്റുകൾ നടത്താറുള്ളത് മെയിനായിട്ട് പ്രധാനമായിട്ടുമുള്ളത് ഫുട്ബോള് ക്രിക്കറ്റ് പോലുള്ള ടൂർണമെൻ്റുകളാണ് നടത്താറുള്ളത് അവർ കൂടുതലും ഇവർ രജിസ്ട്രേഷൻ ഫീസായിട്ട് ഇരുന്നൂറ് രൂപ ഒരു ടീമിന് ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ അതിൽ കുറവോ കൂടുതലോ ഇതുപോലുള്ള ഒരു ഇരുന്നൂറ് രൂപ ഒക്കെ എടുത്തിട്ട് അവർ പല ടീമുകളില് ഇതിലോട്ട് ക്ഷണിച്ചാണ് ഇതിൽ കൂടുതലും ടൂർണമെൻ്റുകൾ നടത്താറുള്ളത് അതിൽ നിന്ന് അവർക്ക് അതിൽ നിന്ന് കിട്ടണ പൈസ കൊണ്ട് അവർ ട്രോഫി മേടിക്കും ക്യാഷ് പ്രൈസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് ജയിച്ച് ടീമുകൾക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമൊക്കെ ടൂർണമെൻ്റ് നടത്താറുള്ളത്